ഹലോ ചേട്ടാ ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് ഗൂഗിൾ പേ ഇട്ടേരെ ടോട്ടൽ എത്ര കിലോമീറ്റർ കാണും അതല്ല ഇവിടുന്ന് പുനലൂർക്ക് അത്രയേ ഉള്ളല്ലേ ആ അവിടെ ആ എനിക്ക് അയിര് വരെ പോകാൻ അറിയാം അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഒന്ന് പറയാമോ ആ ആ ഹായ് ഈ ജടായു എന്ന് പറയുന്നത് അതെ അല്ലേ അവിടെ അത്യാവശ്യം കാണാനൊക്കെ നല്ല സ്ഥലം ആണോ അതെ അല്ലേ അവിടുന്ന് റൈറ്റോ ആ അതെ അതെ ആ ഗൂഗിൾ ഇട്ടപ്പോഴത്തേക്കും ഇതിൽ ചുറ്റാണ് കാണിക്കുന്നതേ ആ അതെ അല്ലേ ഈ ക്ലിഫിൽ അത്യാവശ്യം നല്ല ഹോട്ടൽ ഒക്കെ കാണുമല്ലോ അതെ അല്ലേ ഓക്കെ ആ ഓക്കെ ഏട്ടാ എന്നാൽ ഓക്കെ ശരി